മത്സ്യബന്ധനത്തിനായി ഞങ്ങൾ സാധാരണ ഉപയോഗിക്കാറ് ചൂണ്ടകളാണ് ചൂണ്ടയിൽ മണ്ണിരയെ കോർക്കുകയോ അല്ലെങ്കിൽ ബ്രെഡും ഗോതമ്പും ചേർത്തുള്ള മിശ്രിതം ഉണക്കുകയും ഉണക്കിയുരുട്ടുകയും ഉണക്കിയുരുട്ടിവെക്കുകയും ആണ് ചെയ്യാറ് മൂന്നുപേർ അടങ്ങുന്ന നാല് സംഘമായാണ് ഞങ്ങൾ മൽസ്യബന്ധനത്തിനു പോവാറ് നദികൾക്ക് പുറമെ തോടുകളിലും കുളങ്ങളിലും പോവാറുണ്ട് കുളങ്ങൾ കെട്ടികിടക്കുന്ന വെള്ളമായതിനാൽ വേനൽ വേനൽ സമയങ്ങളിലും ശേഷം കടല്കൾ നദികളിലും ആണ് പോവാറ് അതുകൊണ്ടത് കടലുകളിൽ പോവാറില്ല നദികൾക്കു പുറമെ ഞങ്ങൾക്ക് ആമകളെയും ഞണ്ടുകളെയും കിട്ടാറുണ്ട്

ആമകളെയും ഞണ്ടുകൾ ഞണ്ടുകളെയും കിട്ടാറുണ്ട് ചൂണ്ടയിടുമ്പോൾ ഏറ്റവും ഏറ്റവും പ്രശ്നമായി തോന്നിയിട്ടുള്ളത് കലങ്ങികിടക്കുന്ന വെള്ളമാണ് കലങ്ങികിടക്കുന്ന വെള്ളത്തിൽ മീനിനെ മീനിനെയോ അല്ലെങ്കിൽ മീനിന് ചൂണ്ടയെയോ കാണാൻ സാധിക്കുന്നതല്ല വേനൽ വേനൽ സമയങ്ങളിൽ വെയിലാറിയശേഷം വൈകുന്നേരങ്ങളിൽ ആണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവാറ് കാരണം വൈകുന്നേരങ്ങളിൽ മീനുകൾ പൊന്തിവരുകയാണ് ചെയ്യാറ് ചിലസമയങ്ങളിൽ പരിസര വീടുകളിൽ കൊണ്ടുപോയോ പരിസരങ്ങൾ കൂടെ കൊണ്ടുപോകയോ വലിയ മീനുകൾ വലിയ മീനുകൾ കിട്ടിയാൽ അവിടെയുള്ള മാർക്കറ്റുകളിൽ അത് കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്യാറ്